ആ ചേട്ടാ ഞാനൊരു അഞ്ച് മിനിട്ട് മുൻപ് ചേട്ടൻ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത ആളാണ് അതെൻ്റെ ബാഗ് ചേട്ടൻ്റെ വണ്ടിയിൽ വച്ച് മറന്നു അതൊന്നു തിരിച്ചെത്തിക്കാൻ പറ്റുമോ എങ്കിൽ ഞാൻ പോയി എനിക്ക് ഫ്ലൈറ്റിന് ടൈമിന് അരമണിക്കൂറേ ഉള്ളൂ അപ്പം അതിനു മുൻപ് ചേട്ടനെ ഇനിയിപ്പോൾ അടുത്ത് ഒരുപാട് ദൂരം പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പം ചേട്ടൻ ഒന്ന് ഇങ്ങോട്ടൊന്നു കൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടു വന്നാൽ വലിയ ഉപകാരമായി ചേട്ടാ ആ ചേട്ടാ അതെ പാലക്കാട്ടിൽനിന്ന് കയറിയ ആളു തന്നെയാണ് അതൊന്നു ഇവിടെ എത്തിച്ചാൽ ഉപകാരമായി ചേട്ടാ കാരണം അതിൽ കുറച്ചു ഡോക്യുമെൻ്റ് അതും ഇതും എല്ലാം ഉണ്ട് അപ്പോൾ അതു വേണം അതില്ലാത്ത എയർപോർട്ടിൽ ഇതാക്കാൻ പറ്റില്ല ആ ചേട്ടൻ ഇങ്ങട് എത്താൻ നോക്ക് ചേട്ടൻ ഞാൻ ഇവടെ പുറത്ത് നിൽക്കാം ചേട്ടൻ ഇങ്ങോട്ട് വന്നാൽ മതി ആ ഇറക്കി വിട്ട സ്ഥലത്തുതന്നെ എയർപോർട്ടിൽ ചേട്ടൻ എന്നെ ഇറക്കി വിട്ട സ്ഥലത്തുതന്നെയാണ് അപ്പം അവിടെ വന്നു വെച്ചാൽ എന്തെങ്കിലും ചേട്ടന് വേണ്ടതെങ്കിലും കാണാം അത് കുഴപ്പമൊന്നുമില്ല ആ ശരി ചേട്ടാ എന്തായാലും നോ ആ വളരെ നന്ദി ചേട്ടാ ശരി